ഹലോ ആ പറയൂ ആ പാ പല്ല് തന്നെയാണോ വേദന അല്ലെങ്കിൽ ഈ മോണ ഭാഗത്താണോ ആ അപ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് ആ പല്ല് തേക്കുമ്പം ചോര കാണപ്പെടുന്നുണ്ടോ പുളിപ്പ് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല അല്ലെ ആ നിങ്ങൾ ഡോക്ടറിനെയോ അങ്ങനെയെന്തെങ്കിലും ഒക്കെ നിരീക്ഷിച്ചിരുന്നോ സന്ദർശിച്ചിരുന്നോ എവിടേയും കാണിച്ചിട്ടില്ല ഗുളികകളൊന്നും കഴിക്കുന്നില്ലല്ലോ ആ അപ്പോൾ അല്ല ഇപ്പോൾ നിങ്ങൾ ഇപ്പം ചെയ്യേണ്ടത് എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ എന്നെ വന്നൊന്ന് കാണുക

പിന്നെ ഒരു കാര്യം പുളിപ്പുണ്ടോന്ന് തൽക്കാലത്തേക്ക് നിങ്ങൾ പരമാവതി തണുത്ത ഭക്ഷണങ്ങൾ തൂ വളരെ അധികം ചൂടുള്ള ഭക്ഷണങ്ങൾ ഒക്കെ ഒഴിവാക്കുക എങ്ങനെ കാ എന്നെ കാണാൻ നിങ്ങൾക്ക് എപ്പോളാണ് ടൈം ഇപ്പോൾ കിട്ടുക ഞാനെപ്പഴും ഫ്രീ ആണ് അഞ്ച് മണിക്ക് അപ്പം നാളെ ഒരൂ ആ അഞ്ചര അഞ്ച് മണിക്ക് നിങ്ങൾ വന്ന് ആദ്യം കുറച്ച് കഴിയുമ്പം തന്നെ നിങ്ങൾ ഞാൻ ഒരു നമ്പർ ഇട്ട് തരാം ആ ബുക്ക് ചെയ്തിട്ടേ വരാൻപാടുള്ളൂ ചേച്ചിയുടെ ഫോണിലേക്കൊരു റിസീപ്റ്റ് വെരും ആ റിസീപ്റ്റ് കാണിച്ചാലേ കേ അകത്തേക്ക് വിടുകയുള്ളു ആ നമ്മളുടെ ഫീസ് എന്ന് പറയുമ്പോൾ മുന്നൂറ് രൂപയാണ് നമ്മൾ പല്ല് നോക്കുന്നതിന് മേടിക്കുന്നത് പിന്നേ മരുന്നിനും കുറച്ച് വിലയാകും

ആ നമുക്ക് നോക്കാം